എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല ഉല്ലാസപരമായ മറൈൻ ഡ്രൈവ് പിന്നെ അത് കൂടാണ്ട് എറണാകുളം ചിൽഡ്രൻസ് പാർക്ക് സുഭാഷ് പാർക്ക് എന്നിവ എല്ലാം കുട്ടികൾക്ക് എന്റർടൈൻമെൻ്റ് കൊടുക്കുന്ന പാർക്കുകളാണ് കായിക സൗകര്യങ്ങൾ എന്ന് പറയാനായിട്ട് മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റേഡിയം തന്നെ ഇങ്ങനെ നമ്മൾ ഓടുന്നവർക്കും ചാടുന്നവർക്കും വേണ്ടിയിട്ട് മറ്റേ ട്രാക്ക് ഓടാനും എല്ലാ സൗകര്യങ്ങളും കായിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയം ആണ് മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റേഡിയം അതുപോലെ തന്നെ അവിടെ ബാക്കി സ്റ്റേഡിയങ്ങൾ എന്ന് പറയാനായിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ട് അവിടെ ക്രിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും പല പല ഇന്ത്യയുടെ ഇന്ത്യയുടെ തന്നെ ഇന്ത്യയുടെ തന്നെ മാച്ചുകൾ നടക്കുന്ന സ്ഥലമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തിയേറ്ററിൽ സരിത സവിത സംഗീത അതുപോലെ ലുലു മൈമൂൺ അങ്ങനെ പല പല തീയേറ്ററുകളും അവിടെ എറണാകുളത്ത് ഉണ്ട് അതുകൂടാതെ ശ്രീധർ അങ്ങനെയുള്ള പല പല തീയേറ്ററുകളിലും സിനിമ സിനിമ കാണാനുള്ള സൗകര്യങ്ങളും സാംസ്കാരിക പരിപാടികൾ നടത്താനായിട്ട് ടി ഡി എം ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഡർബാർ ഹോൾ ഗ്രൗണ്ടിൽ നമ്മുടെ ആം അമ്പലങ്ങളുടെ പരിപാടികളും അതുകൂടാണ്ട് മറ്റുള്ള സാംസ്കാരിക പരിപാടികളും എന്തെങ്കിലും ലൈവ് ഷോ നടത്താനാണെങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ സാംസ്കാരിക ഹാൾ ഗ്രൗണ്ടിലുണ്ട് അത് കൂടാതെ കായിക മൈതാനങ്ങളെന്ന് പറയാനായിട്ട് മഹാരാജാസ് കോളേജ് ഗ്രൗൻഡ് ഉണ്ട് മഹാരാജാസ് കോളേജ് ഗ്രൗൻഡിൽ എല്ലാ കായിക തരത്തിലുള്ള പ്രാക്ടീസിനും ആ ഗ്രൗൻഡ് ഉപയോഗിക്കാറുണ്ട് പാർക്കുകളെന്ന് പറയാനായിട്ട് വ വണ്ടർ ലാ പോലത്തെ പല പല അഡ്വ അഡ്വഞ്ചറസ് പാർക്കുകളുണ്ട് പിന്നെ ഡ്രീം വേൾഡ് ഉണ്ട് അങ്ങനെ പല പല പല പല പാ പാർക്കുകളും അതിൽ ചില പാർക്കുകളിൽ സൗജന്യമാണ് ചില പാർക്കുകളിൽ നമ്മൾ ഫീസ് അനുവദിച്ചിട്ടുണ്ട് പല പല റൈഡുകളിൽ കയറണമെങ്കിലും ഫീസുകൾ ഉണ്ട് അപ്പം അത് അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്